ആ അതെ ലിബർട്ടി സിനിമാസാണ് നാളത്തേക്കാണോ ഏതു സിനിമയുടെയാണ് സാർ അവസാനത്തെ ഷോ സെക്കന്റ് ഷോ ആണെങ്കിൽ ഒമ്പതരക്കാണ് സാർ ശരാശരി ബൂക്കിങ്ങേ ഉള്ളൂ സാർ സീറ്റൊക്കെ ഉണ്ട് ആ ആ സീറ്റൊക്കെ ഉണ്ടാവും സാർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ മുമ്പിൽ ഏറ്റവും മുമ്പിൽ സ്ക്രീനിൻ്റെ മുമ്പിലായിട്ട് പിന്നെ സ്ക്രീനിൻ്റെ നടുവില് പിന്നെ വരുന്ന ബാൽക്കണിയാണ് സർ ഫാമിലിയൊക്കെ അധികം ബാൽക്കണിയാണ് ബുക്ക് ചെയ്യുന്നത് അതെ അതെ ആറുപേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാം കുറെ സീറ്റുണ്ടല്ലോ സാർ ആ പറ്റും സർ ആ ആ മുമ്പിലത്തേന് നൂറു രൂപയും നടുവിലെ ആയിട്ടു വരുമ്പോൾ നൂറ്റമ്പത് രൂപയും ബാൽക്കണി ഇരുന്നൂറു രൂപയുമാണ് സർ

സ്ക്രീന് ത്രീഡി സപ്പോർട്ടഡാണ് റ്റുഡി ഇപ്പോൾ സിനിമ റ്റുഡിയാണലോ പിന്നെ വരുന്നത് സൗണ്ടിങ് സൗണ്ടിങ് ഡോൾബി അറ്റ്മോസാ അതിന് ബുക്കിംഗ് മാത്രമാണ് ശരാശരി പിന്നെയെല്ലാവരും ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് ആ പറ്റും പറ്റും ആ ആറെണ്ണം അല്ലേ നാളേക്കാണോ സാർ ആ അപ്പോൾ എങ്ങനെ ടിക്കറ്റ് എങ്ങനെയാണ് അയച്ചു തരേണ്ടത് ജിമെയിലായിട്ടാണോ അതോ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതിയോ എങ്ങേനെയാണ് കസ്റ്റമറുടെ ഇഷ്ടമാണ് സാർ ഞങ്ങൾ നോക്കുന്നത് ആ അവിടെ വന്നു കാണിച്ചാൽ മതി മ് ആ ഓക്കെ ഓക്കെ ആ ബസ്റ്റാന്റിൻ്റെ ഓപ്പോസിറ്റാണ് സാർ എതിർവശത്ത് ആ ബുക്കിംഗ് ചെയ്തോ വിളിച്ചതിന് നന്ദി